ആ അപ്പഴ് ഞാൻ കേരളത്തെക്കുറിച്ച് അറിയാനാണ് മാം ഒരു നല്ല ഒരു ബ്രില്യൻ്റ് ആണ് കേരളത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞുതരാൻ മിടുക്കിയാണെന്നൊക്കെ അറിഞ്ഞ് ഒരു നമ്പര് കിട്ടിയതനുസരിച്ചാണെ ഞാൻ വിളിക്കുന്നത് അപ്പഴ് കേരളത്തിൻ്റെ അ എന്നാലും എനിക്ക് കൂടുതലും അറിയേണ്ടത് അ കൂടുതലും അറിയേണ്ടത് കേരളം കേരളത്തിൻ്റെ കാർഷിക വിളകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും തെങ്ങിനെക്കുറിച്ച് ഒക്കെ കൂടുതൽ അ അ

അ

കൊല്ല